ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഫാഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മൾ പഴയ രീതിയിലുള്ള വസ്ത്രധാരണമാണ് നോക്കേണ്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നല്ല രീതിയിലുള്ള വസ്ത്രധാരണമായിരിക്കും നമ്മൾ പുറത്തേക്ക് ഒന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാത്ത രീതിയിലുള്ള ഡ്രസ്സ് ധാരണ ആയിരുന്നു സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഡ്രസ്സ് ധരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഫാഷനാണ് പണ്ട് സാരിയായിരുന്നെങ്കിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജീൻസ് ടോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും യൂസ് ചെയ്തിരിക്കുന്നത് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെക്കാലത് ഓരോ ഫാഷന് കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല അന്നത്തെ ഒരു നോർമൽ പാൻറ് നോർമൽ ഷർട്ട് അല്ലെങ്കിൽ നോർമൽ മുണ്ട് നോർമൽ ഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ആ പാ ഓരോ നാട്ടിലും യൂസ് ചെയ്തു കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം ഇന്നത്തെക്കാലത്ത് അങ്ങനെയല്ല അതായത് സെ സ്കിൻ ഫിറ്റ് പാന്റ് അല്ലെങ്കിൽ ബാഗി ജീൻസ് അങ്ങനത്തെ കുറേ ജീൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ലേഡീസ് വരെ അതായത് ചെറിയ കുട്ടികൾ വരെ ഡ്രസ്സ് സ്റ്റൈലൊക്കെ മാറി അവർ ബനിയനും ജീൻസും അല്ലെങ്കിൽ എന്താ പറയുക ടീ ഷർട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വസ്ത വസ്ത്രധാരണത്തിൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇപ്പം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും അങ്ങനത്തെ നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാരെ കണ്ടുകഴിഞ്ഞാലും പുറമെ നിന്ന് വരുന്ന ഒരാളെ പോലെ നമുക്ക് തോന്നാറൊക്കെയുണ്ട്